ആ ഓക്കെ അതായത് എൻ്റെ പേര് ഷൊയ്ബ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു എനിക്കൊരു എൺപത് ശതമാനം മാർക്കുണ്ട് ടെൻത്തിൽ അപ്പോൾ എനിക്ക് എഞ്ചിനിയറിംഗ് ഫീൽഡ് ആണോ അതോ ഡിപ്ലോമ പോണോ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ് അപ്പോൾ അതിനെപ്പറ്റിയൊരു അഭിപ്രായം ചോദിക്കാൻ ആ യെസ്

അല്ല ഐ ടി ഐ ടി ഫീൽഡ് പോകുവാനാണ് ആ ഓക്കെ

ആ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് അറിയേണ്ടത് ഇനിയിപ്പോൾ ഇതിൽ ഏതിൽ സർട്ടിഫിക്കറ്റിലേക്ക് കുറച്ചു വാല്യു കൂടുതലെന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഏതു പഠിച്ചാലാണ് കുറച്ചുകൂടി നല്ല ജോബ് ബി ടെക്ക് ആണെങ്കിൽ നല്ലതാണല്ലേ ബിടെക് ആയിരിക്കും നല്ലതല്ലേ

ഓക്കെ ഓക്കെ ഇനി ഞാനെന്നാൽ ആലോചിച്ചിട്ട് ഒന്നുകൂടി വിളിക്കാം എന്നാൽ ശരി